എന്തൊക്കെ വിദ്യകളാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വലയിട്ട് വല വീശി പിടിക്കുന്ന ഒരു വിദ്യയുണ്ട് അതുപോലെ തന്നെ ചൂണ്ട ഇടുക ചൂണ്ട ഇടുകാന്ന് വെച്ചാൽ ഒരു വലിയൊരു കൊ കൊള്ളിൽ ഒരു വലിയൊരു നൂല് ഇപ്പം വലിയുന്നൊരു നൂ നൂലില്ലേ ഒരു പിന്നെ ഡ്രെസ്സിൻ്റെയൊക്കെ അറ്റത്തുള്ളൊരു നൂല് ഉണ്ട് അത് ചു കുറെ ഉണ്ടാവും നല്ല നീളണ്ടാവും അപ്പം അതിൻ്റെ അറ്റത്തിപ്പോൾ ചെറിയൊരു ഫുഡ് ഭക്ഷണം ഇപ്പം മീനുകൾ കഴിക്കുന്ന ഭക്ഷണൊന്നും കൂരിക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഇട്ട് വെച്ചാൽ നമ്മൾ സ അപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കരുത് നമ്മൾ പുഴേൻ്റെ അരുകിന്നു സൗണ്ട അപ്പോൾ മീനുകൾ വന്ന് കൊത്തിയാൽ ആ അതിൽ കുടുങ്ങും അപ്പം അങ്ങനെയുള്ളൊരു വിദ്യയുണ്ട് അതുപോലെ ഇങ്ങനെ പിന്നെ ഒരു ഒരു കായൊണ്ട് അതുപൊടിച്ച് ഒരു ഭക്ഷണ രൂപത്തിലാക്കീട്ട് മീന് ഇപ്പോൾ പുഴയിലോ നദിയിലൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മീനുകൾ വന്ന് അത് കഴിച്ചാൽ പിന്നെ കുറച്ച് കെടക്കും ഒരു ഇപ്പം നമുക്കിപ്പോൾ ഈ കൂറക്കൊക്കെ വിഷം വെക്കൂല്ലേ വിഷമല്ല കൂറക്ക് ക്കെ കൂറ വരാതിരിക്കാനൊക്കെ ഓരോ പണികൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഇത് കഴിച്ചാൽ ഇങ്ങനെ കൂ ബോധം കെട്ടപോലെ നിക്കും അപ്പോൾ കോരിയെടുക്കുന്ന വിദ്യ ഇതുപോലുള്ള ഒരുപാട് വിദ്യ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന് മുൻപ് തയ്യാറെടുക്കാന്ന് വെച്ചാൽ വലയൊക്കെ നന്നായിട്ട് പിന്നെ ശരിയാക്കി വെക്കുക അതുപോലെ ഇങ്ങനെ എന്താണോ ബ ബോധം കെടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡ് അത് അത് ഉണ്ടാക്കി വെക്കുക അതൊക്കെയാണ് പിന്നെ ഒരു പിന്നെ കുപ്പിലിങ്ങനെ നൂല് ചു ചു ചുരുട്ടി വെച്ചിട്ട് പുഴ പുഴയിലേക്കിട്ടാൽ അതിൽ വന്ന് കുരുങ്ങും ഇങ്ങനൊക്കെയാണ് നമ്മൾ മീനെ പി മത്സ്യബന്ധനം ചെയ്യുക അതുപോലെ തന്നെ എത്ര സമയം ചെലവഴിക്കൂന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോയി ഒരുപാട് സമയം ഇപ്പം എൻ്റെ അച്ഛനൊക്കെ രാത്രിയിൽ പോയാൽ രാവിലെ രാവിലെയൊക്കെയാണ് എത്താറ് അപ്പം അതിനിടയിൽ മീനിനെ കിട്ടും പിന്നെ അവിടെ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി അവിടുന്ന് തന്നെയാണ് കഴിക്കാറ് ഇപ്പം വൈകുന്നേരങ്ങളിൽ പോയാൽ പുലർച്ചക്ക് എത്തും പിന്നെ അതുപോലെ രാവിലെ പോകുന്നതാണെങ്കി രാത്രിയാകുമ്പോത്തേക്ക് എത്തും അങ്ങനെയൊക്കെയാണ് എത്താറ് കുറെ സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വരും